എനിക്ക് ഞാൻ ഓഡർ ചെയ്ത ഫസ്റ്റ് പ്രൊഡക്ട് ഇന്ന് വീട്ടിലേക്കെത്തി മുപ്പത്തി രണ്ട് സൈസിൻ്റെ ഒരു ജീൻസാണ് ഞാൻ ഓഡറ് ചെയ്തത് ഞാൻ ഓഡർ ചെയ്ത അതേ ഗുണത്തിലും നിലവാരത്തിലുമുള്ള ജീൻസ് തന്നെയാണ് എനിക്ക് ലഭിച്ചത് അതു മാത്രമല്ല ഇത് ധരിക്കുന്നതിന് വളരെ സുഖകരമായിട്ടുള്ള ഒരു പ്രൊഡക്ട് ആണ് എനിക്ക് ലഭിച്ചത് മാത്രമല്ല ഇതിൻ്റെ നിറവും ഗുണവും ഒരുപോലെ മെച്ചമാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ ഈ ജീൻസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ മറ്റ് ജീൻസുകളുടെ പോലെ വളരെ കാഠിന്യമേറിയ മെറ്റീരിയൽ അല്ല ഇതിൽ ഉള്ളത് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ഏതൊരു എക്സിക്യൂട്ടീവ് പർപ്പസിനും ക്യാഷ്വൽ പർപ്പസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ജീൻസാണ് എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ ജീൻസിന് വളരെ കുറച്ച് പൈസ മാത്രമേ എനിക്ക് ആയിട്ടുള്ളു അതുപോലെ തന്നെ ഈ ജീൻസിന് കോംബോ ഓഫറുകളും അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജീൻസിനോട് എനിക്ക് ഒരു ജീൻസ് കൂടി സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് ആ ജീൻസും ഒരുപടി മുന്നിലാണെന്ന് വേണം പറയാൻ ഒരു ഫ്രീ ഉൽപ്പന്നമെന്നതിനേക്കാൾ ഉപരി അതേ ഗുണത്തിലും നിലവാരത്തിലുമുള്ള പ്രൊഡക്ട് ആണ് അവർ തന്നിരിക്കുന്നത് ഈ ജീൻസ് ഇടുമ്പോൾ വളരെ വളരെ സുഖകരമാണ് നടക്കാനും ഓടാനും വളരെ കംഫോർട്ട് ആണ് ഏതൊരു ഉടുപ്പ് ഒരു ഷർട്ടിൻ്റെ കൂടെയോ ഏതൊരു വസ്ത്രത്തിൻ്റെ കൂടെയും ഈ ജീൻസ് വളരെ സൗകര്യമായി നമുക്ക് ഉപയോഗിക്കാം ഇത് കഴുകുന്നതിനും നല്ല സുഖകരമായിട്ടുള്ള ഒരു ജീൻസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിറമൊന്നും മങ്ങുന്നില്ല നമുക്ക് വളരെ ആയാസകരമില്ല സാധാരണ ജീൻസ് പ്രത്യേകം വളരെ ആയാസപ്പെട്ടാണ് എല്ലാവരും കഴുകുന്നത് പക്ഷേ ഇത് അങ്ങനെ ഉള്ളൊരു പ്രശ്നവും ഇല്ലാ എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രൊഡക്ട് വാങ്ങണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ടാങ്ക് യു